കൊറോണ സമയം എന്നു പറഞ്ഞത് ഒരു മോശപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു എല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥ പുറത്ത് ഇറങ്ങാൻ പറ്റാതെ സ്വന്തം വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി ഇരിക്കുന്നൊരു അവസ്ഥ അതുപോലെ വാർത്തകൾ കാണുമ്പോൾ എത്രയോ ജീവനുകൾ പോവുകയാണ് എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ കൊറോണയുടെ സമയത്ത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തെയും സംരക്ഷിച്ച ഒന്ന് എന്നു പറയുന്നത് വീട്ടിൽ അനങ്ങാതെ ഇരിക്കുക അതായത് പുറമെ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നു പറയുന്ന ഒന്നു തന്നെയാണ് അതുപോലെ നമ്മുടെ സാമൂഹിക അകലം പാലിക്കുക അതായത് ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ലാതിരിക്കുക മാസ്ക് മാസ്ക് ധരിക്കുക എന്നു പറയുന്നത് ഒന്നു തന്നെയാണ് പിന്നെ അതുപോലെതന്നെ നമ്മുടെ നമ്മൾ പാലിക്കേണ്ട ശുചിത്വം പുറത്തുപോയി വന്നിട്ടുണ്ടെങ്കിൽ കൈകാലുകൾ വൃത്തിയിൽ കഴുകുക സോപ്പിട്ടു കഴുകുക മാസ്കുകൾ ധരിക്കുക അതുപോലെ മറ്റുള്ളവരുമായിട്ടു അകലം പാലിച്ചു നിൽക്കുക എന്നതു തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നത് മാസ്ക് എന്നു പറയുന്നത് വലിയ വലിയ ഒരു ഇതു തന്നെയാണ് അതുപോലത്തെ കൂടാതെ ഫേസ് മാസ്ക് നമ്മളിപ്പം പല തരത്തിലുള്ള മാസ്കുകൾ ഉണ്ട് സർജിക്കൽ മാസ്ക് അതുപോലെ എൻ തേർട്ടി ത്രീ അങ്ങനെ പലതരത്തിലുള്ള മാസ്കുകൾ എൻ നയന്റീൻ അങ്ങനെ പല തരത്തിലുള്ള മാസ്കുകൾ നമ്മൾ ഉപയോഗിച്ചു വന്നിരിക്കുന്നുണ്ട്